മലയാള ഭാഷയിൽ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായത് അന്ന് ഇപ്പോൾ ആദ്യ കാലത്തെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് അക്ഷരസ്പുടമായിട്ടുള്ള ഭാഷകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് പോലെ നല്ല രീതിയിലുള്ള ഒരു മലയാള ഭാഷയല്ല ഇപ്പോൾ പറയുന്നത് കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷും മലയാളം കൂടിക്കലർന്നിട്ടൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അപ്പോൾ മറ്റു ഭാഷകൾ കൂട്ടിക്കലർത്തിയിട്ട് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം അപ്പം വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് മലയാള ഭാഷയിൽ നമ്മളിപ്പം ഇംഗ്ലീഷ് ഒക്കെ കൂടിക്കലർത്തി വായിക്കു പറയുമ്പം മറ്റേ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മലയാള ഭാഷയെ മാറ്റി നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണുള്ളത് പിന്നെ സംസ്കാരവും അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പം സാരിയും എല്ലാം ഉടുക്കുന്ന ഇതായതുകൊണ്ട് ഇപ്പം നേരെ തിരിഞ്ഞ് ചുരിദാർ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഉടുക്കുന്നത് പിന്നെ മ ആണുങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുണ്ടൊക്കെ ഉടുക്കുന്നു പിന്നെ ഇപ്പോൾ ആണുങ്ങൾ പാന്റ് കാര്യങ്ങളൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്നു ആദ്യത്തെ കാലത്ത് പാൻറ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മലയാള ഭാഷയിൽ മാത്രമല്ല എല്ലാ സ എല്ലാ ഇതിലും മനുഷ്യർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്